ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കൃഷിക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഘടകമാണ് അതായത് ജലം അതായത് നല്ല രീതിയിലുള്ള ജലവിതരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കൃഷി മര്യാദയ്ക്ക് മുന്നോട്ടു കൊണ്ടുപോകുവാൻ പറ്റില്ല ഇപ്പോൾ എന്തിനാണെങ്കിലും ഇപ്പോൾ കൃഷിക്ക് മാത്രമല്ല വേറെ എന്തൊരു പരിപാടിക്കാണെങ്കിലും ജലം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ആണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ശ്രോതസ്സ് കാര്യങ്ങൾ അതായത് പ്രദേശത്ത് ഇപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ ജലസേചനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ജലവിതരണവും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിലെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി നശിച്ചുപോകും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് വിളവ് കാര്യങ്ങളൊന്നും കിട്ടില്ല വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ കൃഷിയിലേക്ക് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കൃഷിയോ കാര്യങ്ങളൊ ചെയ്യുന്നുണ്ടെങ്കിൽ ജലസ്രോതസ്സ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടിണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിളവ് കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടിയെന്നു വരില്ല